ഇത് യു വി ക്യാബിൻ അല്ലെ ആ ഞാൻ ഇത് ഒരു ഞാനിപ്പോൾ വരുന്നത് നമ്മുടെ ഡൽഹിയിൽ നിന്നാണ് എൻ്റെ പേര് സഞ്ജയ് ആണ് ഞാനിപ്പോൾ എനിക്ക് തൃശ്ശൂർ പൂരത്തിൻറെ സീസൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് സീസൺ ഒന്ന് കാണണം എന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ കേരളത്തിൽ വരുന്നത് ആ ഒക്കെ എന്നാൽ എനിക്ക് എവിടെ തൃശ്ശൂർ തൃശ്ശൂർപ്പൂരം മൊത്തത്തിലൊന്നു കാണുകയും വേണം എനിക്ക് ഇവിടത്തെ ഹോം ഒരു ഹോം പിന്നെ ഒരു ദിവസം ഇവിടെ തങ്ങുവോം വേണം ഹോം സ്റ്റേ കാര്യം ആ ഓ കയറി ഓക്കേ ഓക്കേ നൈസ് നൈസ് പേർ ഡേ അഞ്ഞൂറ് ആ ഒക്കെ ഒക്കെ ഓ ദാറ്റ്സ് നൈസ് ആ അതെ അതെ ഫോ ഫോർ വൺ വീക്ക് എനിക്ക് ഒരു ഒരാഴ്ചത്തേക്ക് സ്റ്റേ വേണം

മീൻസ് ആ എനിക്ക് കേരള ആ ആ ഒക്കെ ഒക്കെ എനിക്ക് കേരളത്തിലെ ഒരു എന്താ പറയുക നാടൻ വിഭവങ്ങൾ നടൻ ഫുഡ് സ്റ്റൈൽസ് അതൊന്നു അനുഭവിച്ചാൽ കൊള്ളാമെന്നുണ്ട് ആ എനിക്ക് ഇങ്ങനെ നാടൻ ആയിട്ടുള്ള ഈ ഫുഡ്സൊക്കെ ഉണ്ടാവില്ലേ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് വിഭവ സമൃദ്ധമായ മീൻസ് സദ്യയൊക്കെ കിട്ടും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ആ ഓക്കേ നൈസ് നൈസ് ഇതിപ്പോൾ ഓക്കേ നമുക്ക് ഇന്നെന്നാ ഇവിടെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് ഇവിടെ തൃശ്ശൂർ അമ്പലത്തിൻ്റെ ഒക്കെ ചുറ്റുഭാഗം എന്താ അവിടെന്താ പറയുക തേക്കിൻകാടോ ആ എന്താ പറയുക എനിക്ക് അറിയില്ല ആ എനിക്ക് ഇവിടെ ഒക്കെ ഒന്ന് ആ ഓക്കേ ഓക്കെ നൈസ് നൈസ് എനിക്ക് ആ മനസ്സിലായി ആ ഓക്കെ ഞാൻ അപ്പോൾ എനിക്ക് ഇവിടെ ഇന്ന് ഇന്ന് ചുറ്റിക്കറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് ഓക്കേ ഓക്കേ അപ്പോൾ ഈ ഓക്കേ ആ എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ശരി അപ്പോൾ പറഞ്ഞപോലെ ആ ശരി